ഹലോ വക്കീല് അല്ലേ ഞാൻ ഒരു ഡൈവോഴ്സിൻ്റെ ഒരു ഇതിന് വേണ്ടി വിളിക്കുന്നതാണ്

കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് വർഷമായി അപ്പം ഡിവോഴ്സിന് കൊടുത്തിട്ടുണ്ട് പിന്നെ ആദ്യം നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ഒരു പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട് അപ്പം ആദ്യം നമ്മൾ നോക്കി അതായത് നന്നാവോന്ന് അറിയാൻ വേണ്ടി അതായത് വീട്ടിലും ഭർത്താവ് ആയിട്ട് വെള്ളം അടിച്ച് വന്നിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെയാണ് അപ്പോൾ ഞാനും ഉദ്ദേശിച്ച് ആ ആ കേസ് കൊടുത്തിട്ട് നമ്മൾ നോക്കിയായിരുന്നു അതായത് അപ്പോൾ പോലീസുകാർ പറഞ്ഞു ഒരു ഒരു മാസം കൊണ്ട് നോക്കി നമുക്കെന്താണ് അവസ്ഥാന്നൊക്കേ അറിഞ്ഞിട്ട് ആ പിന്നേ ഡിവോഴ്സ് നോക്കിയാൽ മതീന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും അടിക്കുവൊക്കേ ചെയ്യും അപ്പോൾ ഒട്ടും പറ്റില്ല അതായത് അമ്മായിയമ്മ എല്ലാം എല്ലാം കണക്കാണ് അപ്പം ആ ആ ആ ഹാ ഹാ ആണല്ലേ ആ അപ്പം നമ്മളോട് പൊലീസാണ് പറഞ്ഞത് അപ്പം നിങ്ങള നമ്പർ തന്നിട്ട് ഒന്ന് നിങ്ങൾ പിന്നെ ഒന്ന് സംസാരിച്ച് നോക്കാൻ പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു ആണല്ലേ ആഹാ ഹാ ആ അപ്പോൾ കൗൺസിലിങ്ങിനൊക്കേ ഇപ്പോൾ അയാൾ വരാൻ തയ്യാറാകോന്നറിയില്ല കാരണം അയാൾക്ക് ഡൈവോഴ്സിന് ഒന്നും അയാൾ ഒപ്പിട്ട് തരില്ല അങ്ങനെയൊക്കെയാണ് പറയുന്നത് അപ്പം അങ്ങനെയാണല്ലേ ആ ആ അല്ല പുള്ളി അഥവാ വന്നില്ലെങ്കിലോ വരില്ലാന്നൊക്കെയാണ് പറയണത് ഇപ്പോൾ കൗണ്സിലിങ്ങിന് എന്തായാലും രണ്ട് പേരും വരണമെന്ന് നിർബന്ധമാണോ ആ ഹാ ഹാ ഹാ അല്ല കൗൺസിലിങ്ങിന് വന്നാലും അയാൾ നന്നാകുന്നില്ല അപ്പോൾ പിന്നെ ഇനി കൗൺസിലിങ് ഒന്നും കാര്യമില്ലാന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെ ആണെങ്കിൽ നിങ്ങളടുത്ത് നേരിട്ട് കാണാനാണ് എങ്ങിനെയാണ് ആ ആ ഓക്കേ ഓക്കേ ആ എന്നാൽ ഓക്കേ ഞാൻ നേരിട്ടങ്ങ് വരാം ആ ഓക്കേ ഓക്കേ